ആ പറഞ്ഞോളൂ അതെയോ സീറോ ബാലൻസിലാണോ അതോ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള അക്കൗണ്ടാണോ ഉദ്ദേശിക്കുന്നത് സീറോ ബാലൻസാണോ ഓക്കെ പക്ഷേ സീറോ ബാലൻസിൽ അക്കൗണ്ട് എടുക്കുകയാണെങ്കിലും എ ടി എം കാർഡിനും ചെക്ക് ബുക്കിനും എക്സ്ട്രാ ക്യാഷ് പേ ചെയ്യണം കേട്ടോ അത് നമ്മൾ പിന്നെ അതിന് സർവ്വീസ് ചാർജ് ആണ് അതായത് പിന്നെ ചെക്ക് ബുക്കിൻ്റെയും എ ടി എം കാർഡിൻ്റെയും സർവ്വീസ് ചാർജാണത് ഇല്ല ഇപ്പം നിങ്ങൾ സീറോ ബാലൻസിലല്ലേ അക്കൗണ്ട് എടുക്കുന്നത് അപ്പം അതിന് വലിയ ഇതില്ല നമ്മൾ അക്കൗണ്ടിൽ ക്യാഷ് ഇടണം എന്ന് വലിയ ഇതില്ല മിനിമം ഒരു ആയിരം രൂപ ബാലൻസിൽ അക്കൗണ്ട് തുടങ്ങുന്നതെങ്കിൽ പിന്നെ കുഴപ്പം ഇല്ലായിരുന്നു ഇതിപ്പം അങ്ങനെ അല്ലല്ലോ ഉദ്ദേശിക്കുന്നത് സീറോ ബാലൻസിലല്ലേ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത് ഓക്കെ അപ്പം പിന്നെ നിങ്ങളുടെ ഫോട്ടോ ആധാർ കാർഡിൻ്റ കോപ്പി പിന്നെ ഇവിടെ വന്നിട്ട് കുറച്ച് പിന്നെ ഫോമിൽ ഒന്ന് സൈൻ ചെയ്യാനുണ്ട് ഫില്ല് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് ചെയ്യാം എത്ര പ്രായം ഉണ്ട് ഓക്കെ നിങ്ങൾ പിന്നെ ഒരു ദിവസം ബാങ്കിലോട്ട് വന്നാൽ മതി ആധാർ കാർഡ് കൊണ്ടുവരണം പിന്നെ രണ്ട് ഫോട്ടോ എന്തെങ്കിലും പ്രൂഫ് ആധാർ കാർഡ് എന്നൊന്നുമില്ല എന്തെങ്കിലും പ്രൂഫ് അത്രയേ ഉദ്ദേശിക്കുന്നുള്ളൂ അതും കൊണ്ടുവന്നാൽ മതി ബാക്കി ഇവിടുന്ന് നമുക്ക് കുറച്ച് ഫോം ഉണ്ട് ഫില്ല് ചെയ്യാൻ വേണ്ടി ഫില്ല് ചെയ്യാനും ഉണ്ട് സൈൻ ചെയ്യാനും ഉണ്ട് അത് കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെയ്യാമല്ലോ നിങ്ങൾ ഒരു കാര്യം ചെയ്യുക ആയിരം രൂപേൻ്റ അക്കൗണ്ടിൽ ചെയ്യുന്നതായിരിക്കും ഉചിതം മിനിമം ബാലൻസ് സീറോ ബാലൻസിനേക്കാളും ഒരു ആയിരം രൂപ അക്കൗണ്ടിൽ ഇട്ട് ചെയ്യുന്നതാണെങ്കിൽ പിന്നെ അക്കൗണ്ടിൽ ക്യാഷ് ഉണ്ടാവുകയും ചെയ്യും അതായിരിക്കും നല്ലതും അപ്പം പറ്റുന്ന അടുത്തുള്ള ദിവസം ഏതെങ്കിലും ദിവസം വരികയാണെങ്കിൽ ബാങ്കിൽ വരികയാണെങ്കിൽ നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ സംസാരിക്കാമായിരുന്നു എന്നാൽ ഒക്കെ കേട്ടോ